ആ എന്താ മോളെ ആ അതെ എന്താണ് ആ അതെയോ ഉണ്ടല്ലോ എന്താണ് ആ അതേയതേയതേ അതെ മോള് ഇന്നലെ വന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് പ്രശ്നമുണ്ടോ അതെയോ എന്താണ് കൊണ്ടുവന്നിട്ടുണ്ടോ സാധനം അതെ ഓ ഇവിടെയാണോ ഈ ഷോൾഡറിന്റെ ഈ ഭാഗത്താണോ മറ്റേ എന്തേലും പ്രശ്നമാണോ അതെ തുണിയിപ്പോൾ നമുക്കൊന്നു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്താ പരിപാടിക്കാണോ അയ്യോ മോളെ ഇപ്പോൾ ഞാൻ ആതിലിപ്പോൾ സ്റ്റിച്ചൊക്കെ അഴിച്ചു നോക്കീട്ടുണ്ടോ ഞാൻ മൂന്ന് സ്റ്റിച്ച് അടിച്ചിട്ടുണ്ട് ആൾറെഡി അപ്പോൾ ഒന്ന് ഒരു സ്റ്റിച്ച് അഴിച്ചു നോക്കിയാൽ നോക്കിയിട്ടുണ്ടായിരുന്നോ അതെയോ ഇപ്പോൾ മോളുടെ അപ്പോൾ വീടിപ്പോൾ ഇവിടെ അടുത്താണോ എത്ര മണിക്കാണ് പരിപാടി

ആ ഇപ്പോൾ നമുക്കൊന്നു തന്നുവച്ചാൽ നമുക്ക് നോക്കാം അതെയോ മോള് ഇന്നിപ്പോൾ സാധനം കൊണ്ടുവന്നെങ്കിൽ പറയാൻ പറ്റുള്ളൂ എങ്ങനെയാണെന്നുവച്ചാൽ ഇവിടെയിപ്പോൾ ഓണത്തിന് അത്യാവശ്യം നിറയെ നമുക്ക് കുറേ കാര്യങ്ങൾ കുറേ വരുന്നുണ്ട് നമുക്ക് അടിക്കാനും കാര്യങ്ങളുമൊക്കെ അപ്പോൾ ഞാൻ എങ്ങനെ വന്നു മിസ്റ്റേക്ക് എങ്ങനെ വന്നുയെന്ന് അറിയുന്നില്ല എനിക്ക് നോക്കാം ഇപ്പോൾ എന്താണെന്നുവച്ചാൽ ഇവിടെയിപ്പോൾ ആരും അങ്ങനെ കംപ്ലൈന്റൊന്നും പറഞ്ഞിട്ടില്ല ആ അതെയതെ ആ ആ എന്തായാലും മോൾ അത് കൊണ്ടുവരു ഇപ്പോൾ എന്താണെന്നുവച്ചാൽ ഒന്ന് കൊണ്ടുവന്നുവച്ചാൽ ഞാൻ എന്തായാലും ഇന്ന് രാത്രിക്കുള്ളിൽ ചെയ്തു തീർക്കാം ആ അതെ ആ അതെയോ ആ ശരി മോളെ എന്തായാലും മോള് കൊണ്ടുവാ നമുക്ക് നോക്കാം എന്താണെന്നുവച്ചാലും എന്നാലും നാളെ പരിപാടിയൊക്കെയല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം മോളിപ്പോൾ ടെൻഷൻ ആവല്ലേ ആ അതെ ഞാനിപ്പോൾ എന്തായാലും മോള് കൊണ്ടുവാ ഞാൻ എന്തായാലും നോക്കാം നമുക്കിപ്പോൾ ഇതുവരെ പ്രശ്നമൊന്നും ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പോൾ എന്തായാലും മോള് കൊണ്ടുവാ ആ ശരി കൊണ്ടുവന്നോളൂ ആ ആ ശരി ചെയ്തു തരാം ചെയ്തു തരാം